സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ അവരെ സന്തോഷം കാണുന്നതാണ് എൻ്റെ സന്തോഷം മോൾ സ്കൂളിൽ മിടുക്കിയായിട്ട് പഠിച്ചിട്ട് മാർക്ക് വാങ്ങിച്ചിട്ട് വരുന്നത് എല്ലാവരും എൻ്റെ മോളെ പ്രശംസിക്കുന്നതും ആണ് എൻ്റെ സന്തോഷം പിന്നെ സ്കൂളുകളിൽ ഞാൻ പല പ്രോഗ്രാമിനും ഞാൻ പങ്കെടുക്കലുണ്ട് കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ആ രീതി എൻ്റെ കുട്ടികൾ പഠിച്ചിട്ട് മാർക്ക് വാങ്ങിക്കുന്നത് കുട്ടികളുടെ പാരന്റ്സ് എന്നെ പ്രശംസിക്കുന്നതും പിന്നെ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ എന്നോട് വിളിച്ചു പറയുന്നതും നിങ്ങൾ കാരണം എൻ്റെ കുട്ടി ഇത്രയും പഠിച്ചു എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് പിന്നെ എൻ്റെ മോളുടേത് പിന്നെ എൻ്റെ സ്വന്തം ഭർത്താവ് അതായത് എൻ്റെ ഓൻ ഓൻ എന്തോന്ന് പറയേണ്ടത് പണിയിൻ്റെ അടുത്തു നിന്ന് എന്നോട് വിളിച്ച് ഫോണിൽ സംസാരിക്കലുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയലുണ്ട് ഞാനും പറയും എൻ്റെ വിശേഷങ്ങൾ അതെല്ലാമാണ് എനിക്ക് സന്തോഷം നൽകുന്നത് പിന്നെ ഞങ്ങൾ ഒന്നിച്ചിട്ട് പാചകം ചെയ്യും ഞാനും എൻ്റെ ഭർത്താവും ഒന്നിച്ചിട്ട് അടുക്കളയിൽ പാചകം ചെയ്യലുണ്ട് എല്ലാ പണികളും ഞങ്ങൾ ഒന്നിച്ച് ചെയ്യലുണ്ട് അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളുടെ മൂന്നാളുടേതിൽ നിന്ന് വിട്ടിട്ട് അച്ഛനും അമ്മേന്റേയും സന്തോഷം കൂടി എൻ്റെ സന്തോഷത്തിൽ ഉൾപ്പെടും പിന്നെ ഞാൻ കാരണം ആരെങ്കിലും എന്താ നല്ലത് അനുഭവിച്ചു അല്ലെങ്കിൽ അവർ സന്തോഷപ്പെട്ടു എന്നുള്ളത് എനിക്ക് സന്തോഷം നല്കുന്ന കാര്യമാണ് ഒരു ദിവസം ഒരു ആ നന്മ എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എനിക്ക് ഏറ്റവും നന്മ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെയിൽ നിന്ന് വൈകുന്നേരം വരെ പണി എടുത്തു എന്നുള്ളത് അല്ല എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ സന്തോഷവതിയാണ് കാരണം എൻ്റെ ഭർത്താവും എൻ്റെ മോളുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാവരും നല്ല രീതിയിൽ എന്നോട് പെരുമാറുമ്പം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അതു തന്നെയാണ് എൻ്റെ ജീവത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ഒരു ജോലിക്കാരിയാണ് ഇപ്പം പറയാനെങ്കിലും ഒരു ജോലി ഉണ്ട് ടീച്ചറായിട്ട് ആ ഒരു പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ ഞാൻ സന്തോഷവതിയാണ് ചെറുത് ചെറുതിൽ തന്നെ ഞാൻ അത്യാവശ്യം പഠിക്കുന്നുണ്ടായിന് ആ പഠിക്കുമ്പം എനിക്ക് കിട്ടിയ മാർക്കുകളും അത് ഇപ്പോഴും ഞാൻ സന്തോഷപൂർവം ഓർക്കുന്നുണ്ട് അവിടെ നിന്ന് തുടങ്ങിയതാണ് അതേപോലെ എൻ്റെ മോളും നാളെ പഠിച്ചിട്ട് മിടുക്കിയായിട്ട് ഉഷാറായിട്ട് ഒരു ടീച്ചറാവണം എന്നാണെൻ്റെ ആഗ്രഹം അപ്പോഴും ഞാൻ സന്തോഷവതി ആയിരിക്കും എൻ്റെ സന്തോഷങ്ങളിൽ പലവിധം ഒന്നുമില്ല ഞങ്ങളുടെ ചെറിയ കുടുംബത്തിൻ്റെ സന്തോഷം മാത്രമാണ് എൻ്റെ സന്തോഷം പിന്നെ എനിക്ക് ഉടുപ്പുകൾ കിട്ടുമ്പോൾ സ്വർണ്ണം കിട്ടുമ്പോൾ അല്ലെങ്കിൽ കുറേ അതുപോലെയുള്ള സംഭവങ്ങളൊന്നും കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലായെന്ന് ഒന്നും പറയുന്നില്ല കൂടുതലും ഞാൻ സന്തോഷം വിചാരിക്കുന്നത് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും പിന്നെ എൻ്റെ മോളും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉള്ള സമയമാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ കുസൃതികളും ഞങ്ങളെ തമാശകളും ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തമാശയെന്ന് ഞാൻ വിചാരിക്കുന്നത് അതു തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എന്നെ മുന്നോട്ട് പോയിപ്പിച്ചിട്ടുള്ളത് പല രോഗങ്ങളും പല സന്തോഷമില്ലായ്മകളും വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളിലൂടെ ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കുമ്പോൾ അതുതന്നെ ആയിരിക്കും ഞാൻ എന്നും ഓർത്തു വയ്ക്കുന്ന സന്തോഷം അങ്ങനെ പല സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിലും ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾ ഒന്നിച്ചിട്ടുള്ള പലവിധ സാഹചര്യത്തിലും ഞങ്ങൾ സന്തോഷവതി ആയിട്ടുണ്ടായ കാര്യങ്ങൾ എൻ്റെ മെയിൻ സന്തോഷം ഞാൻ ഒരിക്കൽക്കൂടി പറയുന്നു ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോളും ഒന്നിച്ചിട്ടുള്ള സമയമാണ് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴേയ്ക്ക് എന്നെ കൂട്ടാൻ വരും കൂട്ടാൻ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിച്ചതിനു ശേഷം പുറത്തിരുന്നിട്ട് പൂന്തോട്ടത്തിൽ ഇരുന്നിട്ട് ഞങ്ങളും വർത്തമാനം പറയും എൻ്റെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങളിൽ ഒന്നെന്നു പറഞ്ഞാൽ അതാണ് വൈകുന്നേരങ്ങളിൽ എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് മിണ്ടുന്നതാണ് എല്ലാവരും ഒന്നിച്ചു നിന്നിട്ട് മിണ്ടാൻ എന്ന് പറയാൻ കുറേ ആൾക്കാരൊന്നുമില്ല കുടുംബത്തിൽ ഞങ്ങൾ മൂന്നാളേ ഉള്ളൂ ആ മൂന്നാൾ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഞങ്ങളെ വീട്ടിലില്ല കാരണം ഞങ്ങളെ സന്തോഷം ഞങ്ങൾ മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യുന്നില്ല അപ്പം അച്ഛനും അമ്മയുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലും ഞങ്ങൾ തമ്മിൽ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ ലോകം എൻ്റെ എല്ലാം എൻ്റെ വീടാണ് എൻ്റെ വീട്ടിലുള്ള ഈ രണ്ടു പേരാണ് ഇതു തന്നെയാണ് എൻ്റെ സന്തോഷം എന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിലും ഞാൻ പറയുന്നുണ്ട് മുമ്പോട്ടുള്ള ജീവിതത്തിലും ഈ സന്തോഷം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവിധ ഭാവുഗങ്ങളും ഞങ്ങൾക്ക് മുതിർന്നവർ തരുമ്പോഴും ഞങ്ങൾ അവരോട് പറയുന്നത് ഞങ്ങൾക്ക് സന്തോഷവതിയായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം എന്നൊന്ന് മാത്രമേ അന്ന് പറഞ്ഞ സന്തോഷം എങ്ങനെയാണ് ലഭിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടാകുമ്പോൾ മാത്രമല്ലേ ഞങ്ങളുടെ സന്തോഷം നമ്മൾ പറയുമ്പം പിന്നെ എൻ്റെ ഭർത്താവിന് അവരുടെ സങ്കടം പറയുമ്പം ഞാൻ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കും അവർക്കുള്ള സന്തോഷം അത് അവർ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്കും പലവിധ സങ്കടങ്ങളും ജോലി സ്ഥലത്തും നടന്ന് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ നിമിഷവും ഞാൻ ഫോൺ വിളിച്ചും അല്ലാതെയും ഞാൻ പറയലുണ്ട് ആ സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് ആ സപ്പോർട്ടെന്നു പറഞ്ഞാൽ തന്നെയാന്ന് എൻ്റെ സന്തോഷം ഇന്ന് ഇപ്പം ഞാൻ ഇത്രയും ദൂരം പോയ പണിക്ക് പോയിട്ട് വരുന്നുണ്ടാകുമ്പോൾ വൈകുന്നേരങ്ങളിൽ എനിക്ക് സമാധാനം തരാനുള്ള

ആ എൻ്റെ മകൾ എണീച്ചിന് വരുമ്പോഴേക്ക് ഓൾ ഒന്നും നിങ്ങളെപ്പൊലെ സഹായിക്കുന്നില്ല നിങ്ങളല്ലേ എന്നെ കൂടുതലും സഹായിക്കുന്നത് ഇതാണ് എൻ്റെ സന്തോഷം ഈ കുട്ടികൾ എന്നോട് ഓരോ വീട്ടിലത്തെ കാര്യം ചോദിച്ചിട്ട് അതുപോലെ തന്നെ ആണോ ടീച്ചറേ വീട്ടിലേക്ക് എന്ന് ചോദിക്കുന്നത് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് സന്തോഷം തരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബവും എൻ്റെ സ്കൂൾ പരിസരവും എൻ്റെ സ്കൂളിലെ കുട്ടികളും കുട്ടികളുടെ പേരന്റ്സും ആണ് ഇത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവമാണ് എൻ്റെ പ്രൊഫഷൻസ് എന്ന് പറയുന്നത് അതായത് ഞാൻ ഒരു ഒരു ടീച്ചറാണ് അപ്പം ടീച്ചറായിട്ട് നമുക്ക് അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ അതുപോലും ഞാൻ ടീച്ചർ എന്ന രീതിയിൽ സന്തോഷവതിയാണ് നല്ലൊരു ഭാര്യ എന്ന നിലയിലും സന്തോഷവതിയാണ് ഇതിന് എല്ലാത്തിനും കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഒന്നിച്ചിട്ട് എൻ്റെ ഹസ്ബന്റ് എൻ്റെ ഓനും കൂടിയുണ്ട് ഒപ്പം എൻ്റെ മോളും കൂടിയുണ്ട് ഈ സന്തോഷ നിമിഷം ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സാഹചര്യത്തിന് അനുസരിച്ചിട്ട് ഞാനും നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ഞങ്ങളുടെ ലൈഫ് പോകുന്നത് സന്തോഷം എന്നു പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടി എൻ്റെ അച്ഛനും അമ്മയുമാണ്